നമ്മുടെ ആസ്പത്രിയിൽ പ്രസവം ശിശുപരി പരിഗണനയും എന്നു പറഞ്ഞാൽ ഇവിടെ ഗവർണ്മെൻറ്റിലാണെങ്കിൽ ഇത്രയും നല്ല ഹോസ്പിറ്റൽ ഇപ്പം നല്ല വൃത്തിയും നല്ല ചുറ്റുപാടുമെല്ലാമുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ കാഞ്ഞങ്ങാട് ഗവർമെൻറ്റ് ഹോസ്പിറ്റൽ പ്രസവത്തിനാണെങ്കിലും ശിശുപരിചരണത്തിനാണെങ്കിലും അമ്മയും കുഞ്ഞും നല്ലൊരു ഹോസ്പിറ്റൽ അവർക്ക് നല്ല വേറെ തന്നെ ഉണ്ട് അവിടെ ഏത് സമയത്തും പോയാൽ ഡോക്ടർ പരിചരണം കിട്ടുന്നുണ്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ട നല്ല എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടെ നല്ല വൃത്തിയായി ചെയ്തു തരുന്നുണ്ട് ഏതു പാതിരാത്രിയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നല്ല വ്യക്തത വൃത്തിയായി തന്നെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനുള്ള കുട്ടികളെ പരിചരിക്കാനുള്ള ഒരു ടെൻഷൻ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല പേടിവേണ്ട അതുകണക്ക് പ്രസവ ഡോക്ടർ ആണെങ്കിലും എല്ലാ സമയത്തും ഈ അമ്മയും കുഞ്ഞുമുള്ള ഹോസ്പിറ്റലിലുണ്ടായതു കൊണ്ട് അതിനും നമുക്കൊരു വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാൻവേണ്ടി പറ്റുന്നുണ്ട് അതുകൊണ്ട് ഒന്നിനെയും നമുക്ക് പേടിക്കാതെ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാം അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം അതെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് വൃത്തിയാണെങ്കിലും വൃത്തിടെ കാര്യങ്ങൾ ആണെങ്കിലും അവിടെ നേഴ്സിൻ്റെ പരിചരണമാണെങ്കിലും എല്ലാം വളരെ വ്യക്തതയോടാണ് എല്ലാവരും ചെയ്ത് തരുന്നത്

ഗവർ ഗവർമെൻറ്റിലെ അതുപോലെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഭക്ഷണം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ പിന്നെ കിട്ടുന്നുണ്ട് അത് എല്ലാ ടൈമിലും കറക്ടായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ആരോഗ്യത്തിനു കുറവുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റു ഹോസ്പിറ്റലാണെങ്കിലും നല്ല ട്രീറ്റ്മെൻറ്റാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്തത് കൊടുക്കുന്നുള്ളത് അതുപോലെ നല്ലൊരു ശിശുരോഗ വിദഗ്ദ്ധൻ കൂടി ഇവിടെയുണ്ട് അവർ എല്ലാ സമയത്ത് പോയികഴിഞ്ഞാലും കുട്ടികളെ പരിചരിക്കുന്നതിൽ ഒരു മടിയും കാണിക്കുന്നില്ല കുട്ടികളെ കൊണ്ട് ഏത് രാത്രി പോയികഴിഞ്ഞാലും അവർ പരിചരിക്കും അതുപോലെ തന്നെ നർസുമാരുടെ സേവനം വളരെ നല്ല നല്ലരീതിയിലാണ് നടക്കുന്നത്

പ്രസവത്തിനാണേങ്കിൽ നമ്മൾ ഒരു രോഗിയേയും കൊണ്ട് ഹോസ്പിറ്ററലിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള നർസുമ്മാർ എത്ര കാര്യക്ഷമതയോടാണ് അവർ പരിചരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് നല്ല വ്യക്തതയോടാണ് അവർ നമ്മൾ സംസാരിക്കുന്നത്

ഡോക്ടർ അവരുടെ ഫീസും അവിടെ പോയികഴിഞ്ഞാൽ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും നല്ല വ്യക്തതയോട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുട്ടികളുടെ പരിചരണത്തിനായാലും മൂന്ന് നേരവും ഡോക്ടർ വന്നു നോക്കി നല്ല സുഖസുന്ദരമായിട്ട് അവർ പരിശോധിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് അതുതന്നെ നമുക്ക് ഏറ്റവും നല്ല ഇതാണ് കുട്ടികളെയും കൊണ്ട് ഏതു രാത്രി പോയികഴിഞ്ഞാലും അവിടെയുള്ള നർസുമാർ ഇതാണെങ്കിലും മരുന്നുകൊടുക്കുന്നതാണെങ്കിലും കുട്ടികൾക്ക് ടോയ്സ് ആണെങ്കിലും അവർ അത് ചെറിയ കുട്ടികൾക്ക് കുറച്ച് ഇതായിക്കഴിഞ്ഞാൽ ഇതായി കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ കുട്ടികൾക്ക് ടോയ്സെല്ലാം കൊടുത്ത് അവരെ വ്യക്തമായി ചിരിപ്പിക്കാൻ അവരെ പിന്നെ രോഗം എന്തെന്ന് അറിഞ്ഞു അവരേ അതിലേക്ക് ആ മരുന്ന് കഴിപ്പിക്കാൻ ഉള്ള ആ ഇതും അത് അവർ നല്ല കാര്യക്ഷ്മതയോടുകൂടി ചെയ്യുന്നു കഴിക്കാൻ മടിക്കുന്ന കുട്ടികളെ തന്നെ അവരു നല്ല സന്തോഷിപ്പിച്ചിട്ട് ആണ് നേർസും ഡോക്ടറും ഇതാക്കുന്നത് ചെയ്യുന്നത് പിന്നെ രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ അവിടെ എത്ര തിരക്കുണ്ടായാലും തന്നെ അവിടെ കാഷ്യുവാലിറ്റിയിലെ നർസുമാർ ആണെങ്കിലും കാര്യക്ഷമതയോടെ കൂടി നില്കുന്ന ഒരു ദിവസം അവിടെയുള്ള ഒരു ശിശുരോഗ വിദഗ്ദ്ധൻ ആണെങ്കിലും ഇനി ടൈം പോയി കഴിഞ്ഞാലും പോയികഴിഞ്ഞാലും അവിടെ കുട്ടികളെ നോക്കും അവരുടെ അടുത്ത് കുട്ടികൾ ചെന്നാൽ തന്നെ അവരുടെ അസുഖം പൂർണ്ണമായും നിൽക്കും അതാണ് ഇവിടുത്തെ ഡോക്ടറുടെ പ്രത്യേകത അതു കൊണ്ട് വളരെ വ്യക്തതയോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്

പ്രസവ പരിചരണത്തിനു തന്നെ ആശുപത്രിയിൽ ചൂടുവെള്ളം വേണ്ട സമയത്ത് ചൂടുവെള്ളം പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം കുളിക്കാൻ നല്ല അവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും അവരു ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അതെകണക്കു തന്നെ പിന്നെ ഒരു ദിവസം അവർ തൂങ്ങി കിടന്ന ബെഡ് അലക്കി അതു വ്യക്തതയോട് കൂടി ചൂടുവെള്ളത്തിൽ ഇളക്കി മാറ്റി അവർ ഡ്രസ് ചെയ്ഞ്ച് ചെയ്തിരിക്കുന്നു വ്യക്തമായിട്ട് ഒരു ഇത് അറിയിക്കുന്നു

പിന്നെ ഗവർണ്മെൻറ്റ് ആശുപത്രിയിലാണെങ്കിൽ മരുന്ന് വാങ്ങുന്നത് ആണെങ്കിലും അവർ നമ്മൾ കഴിയുന്നതും ഹോസ്പിറ്റലിൽ തന്നെ മരുന്ന് കൊടുക്കുന്നത് ഇങ്ങോട്ട് പുറത്തുന്നു വാങ്ങാതെ കുട്ടികൾക്ക് വേണ്ടുന്ന മരുന്ന് അവിടെ നിന്നു തന്നെ അവർ സംഘടിപ്പിച്ചു കൊടുക്കും അതുപോലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാലും അതു അവിടെ നിന്ന് വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അത്യാവശ്യമാണെങ്കിൽ തീവ്രവിഭാഗത്തിൽ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടി വന്നാൽ അതിനുള്ള സജ്ജീകരണങ്ങളും അവിടെന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ പോയ് കഴിഞ്ഞു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആണ് ഇതെല്ലാം വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് സീരിയസ് പേഷ്യൻസാണെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്ത് ഡോക്ടറും രണ്ടു മൂന്ന് നേഴ്സുമാരും ഒന്നിച്ചു ഉണ്ടാകും എത്ര ഇതാണെങ്കിലും വീട്ടുകാരെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാണ്ട് ആ സമയത്ത് ബ്ലഡ് അറേഞ്ച്മെൻറ്റ് ആണെങ്കിലും അവിടെയുള്ള പോഷക സംഘടനയുണ്ടെങ്കിൽ അവരെ അറിയിച്ചു ബ്ലഡെല്ലാം അവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കാനും ഇവിടെയുള്ള ഹോസ്പിറ്റലുകൾ നല്ല വ്യക്തതയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് മൂന്നു നാലു അഞ്ച് ആറു ഹോസ്പിറ്റലുകൾ ഇൻഡ് അവിടെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആണ് അവർ ചെയ്യുന്നത് വ്യക്തമായിട്ട് ഒരു ബുദ്ധിമുട്ടും ചെയ്യാതാണ് ഇത്രയും വ്യക്തത ചെയ്ത് കൊടുത്തിട്ട് ഉള്ളത് ഒരു ബുദ്ധിമുട്ടും അവർക്ക് ചെയ്തു കൊടുക്കാൻ അവർക്ക് ഇതായിട്ട് ഇല്ല ആരെയും ബുദ്ധിമുട്ടിച്ചിട്ട് ഇല്ല കഴിയുന്നതും എല്ലാം പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഉണ്ട് പിന്നെ ശിശുരോഗ വിദഗ്ദ്ധൻ ആണെങ്കിലും കുട്ടികളെ നോകുന്നതിനും നല്ല നല്ല രീതിയിൽ ആണ് ചെയ്യ് ചെയ്തത് അതു കൊണ്ട് അവർ ഇതുവരെ ഒരു ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഇതറിഞ്ഞില്ല വളരെ നല്ല രീതിയിൽ ആണ് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ കുട്ടികളെ നോക്കുന്നതിൽ വ്യക്തമായിട്ട് ഇത് പ്രതിപാദിക്കുന്നത് പ്രതിപാദിക്കുന്നത് രാത്രി രാത്രി ഏത് രാരാത്രി പോയി കഴിഞ്ഞാലും കുട്ടികളെയും കൊണ്ട് പോയികഴിഞ്ഞാൽ അവിടെ ഉള്ള സിസ്റ്റർമാരായി അവിടെ അവിടെ റിസപ്ഷനിൽ ആണെങ്കിലും ഒരു കുട്ടികളെ പരിചരിക്കുന്നതിൽ വളരെ നല്ല നല്ല നല്ല രീതിയിൽ ആണ് അവർ വ്യക്തമായിട്ട് കാര്യക്ഷമതയോടെ അവർ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും അവരെ അറിയിക്കാണ്ട് പേഷ്യൻറ്റിൻ്റെ കൂടെ അമ്മയാണോ അച്ഛനാണോ ഉണ്ടെങ്കിൽ അവരെ ഒരു ബുദ്ധിമുട്ടും അവരെ അറിയിക്കാതെ കഴിയുന്നതും അവരെ രാത്രി തന്നെ ചെറിയ ട്രീറ്റ്മെറ്റാണെങ്കിൽ കൊടുത്തിട്ട് ഒഴിവാക്കും കാരണം ഒരു ഒരു വിഷമവും അവർക്ക് വരുത്താറില്ല അങ്ങനെയാണ് ഇവിടെ ശിശു പരിചരണം നടക്കുന്നത് നമ്മൾ കഴിയുന്നതും കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ ചൂടുവെള്ളത്തിൽ ഒന്നു കുളിപ്പിക്കാം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം പിന്നെ അവർക്ക് വേണ്ടത് അവരെ കഴിയുന്നത് സന്തോഷിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഇവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് കഴിയുന്നതും ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ ട്രിപ്പ് മരുന്നും നല്ല രീതിയിൽ ആണ് അവരെ ട്രീറ്റ് ചെയ്തത് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും അവരെ അറിയിക്കാൻ അറിയിച്ചിട്ട് ഇല്ല അതുപോലെ ശിശു പ്രസവം പരിചരണം നല്ല രീതിയിൽ ആണ് മുന്നോട്ടു പോകുന്നത് അവർക്ക് വേണ്ടുന്ന ഏല്ലാ മരുന്നുകളും വെച്ച് അവർക്കു പോകുന്ന സമയത്തു തന്നെ വ്യക്തമായിട്ടുള്ള മരുന്നുകളും അതിനുശേഷം രണ്ടാമത് അവർക്ക് ട്രീറ്റ്മെൻറ്റും എല്ലാം വ്യക്തതയോടു കുടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു ഇവിടുത്തെ ഡോക്ടർമാർ പരിപാലനം ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ പ്രസവപരിചരണം ശിശു പരിചരണം